ഹലോ ഞാൻ എനിക്ക് ഞാൻ എൻ്റെ പേര് അൽസ എന്നായിരുന്നെ എനിക്ക് കഥകളി പഠിക്കാൻ താൽപ്പര്യമുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വിളിക്കുന്നതാണെ

ഓക്കേ ഓക്കെ ഓക്കെ ഞാൻ വിളിച്ചത് എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ ഇത് എങ്ങനെയാണ് എത്ര നാളെടുക്കും അതൊക്കെ ഒന്ന് ഡീറ്റെയിലായിട്ട് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നെ

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കേ ഇതാ ഒരു

ഓക്കെ അപ്പോൾ ഇത് എത്ര നാളുണ്ട് ഇതിൻ്റെ കോഴ്സ് ഓക്കെ ഓക്കെ ഇത് പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാൻ എത്ര നാളെടുക്കും ഓക്കെ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ആറു മാസത്തിൽ ഫീസടയ്ക്കുകയാണെങ്കിൽ എളവുണ്ട് അല്ലേ ഓക്കെ ഓക്കെ അല്ല എനിക്ക് അത്രയും പഠിക്കേണ്ട എനിക്ക് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കളിക്കാനുള്ള രീതിയിലേക്കൊന്ന് പഠിച്ചാൽ മതി

ഓക്കെ ഓക്കെ

ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി ഇതിന് രണ്ടിനും കൂടെ കൂട്ടിയാണോ ഒരു മാസം അയ്യായിരം രൂപ ഫീസ് ഓക്കെ അങ്ങനെയാണല്ലേ ഓക്കെ നോക്കാം അപ്പം ഈ രാവിലെ ക്ലാസ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നെ ഓക്കെ ഓക്കെ എല്ലാ ദിവസവും ക്ലാസ്സുണ്ടോ റെഗുലറായിട്ടാണോ

ഈ ഞാൻ ഞാൻ ഞാൻ ചോദിച്ചോട്ടെ ഈ രാവിലെ വരുന്നൊരു സ്റ്റുഡൻ്റിന് ഈവനിംഗിലത്തെ ബാച്ചിന് കയറാൻ പറ്റുമോ

ആ ഓക്കെ ഓക്കെ അപ്പോൾ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികൾ കാണും

ആ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ട് വീട് തൊടുപുഴയിലാണെ

ആ ഓക്കെ ഓക്കെ

ഈ ഈവനിംഗിൻ്റെ ബാച്ചിൻ്റെ ടൈമെപ്പോഴാണ് ഓക്കെ ആ എന്നാൽ ഞാൻ രാവിലെ വരാം അപ്പോൾ എനിക്ക് കോളേജിൽ പോവുകയും ചെയ്യാലോ പിന്നെ രാവിലെ വരാവെ രാവിലത്തെ ടൈമിൽ ഞാൻ അടുത്ത ദിവസം ഇതെന്നാണ് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നെ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ ആ ഓഗസ്റ്റ് ബാച്ച് തൊട്ട് ഞാൻ ജോയിൻ ചെയ്തു കൊള്ളാവെ താങ്ക് യൂ